എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ ഒരു സംഭവം എൻ്റെ ഒരു യാത്രയാണ് ആ യാത്രയിൽ ഞാൻ തനിച്ചായിരുന്നില്ല എൻ്റെ കുറേ കൂട്ടുകാർ അതായത് ഡിഗ്രി പഠന കാലത്ത് എൻ്റെ സുഹൃത്തുക്കളായിരുന്ന മനോജ് സന്തോഷ് പി പി സുധീഷ് മധു ഇത്രയും പേർ ചേർന്നിട്ട് ഒരു കാൽനട യാത്ര അത് രണ്ടായിരത്തി ഒന്നിലാണ് രണ്ടായിരത്തി ഒന്നിൽ ഞങ്ങൾ യാത്ര തുടങ്ങുന്നത് വീട്ടിൽനിന്ന് യാത്ര ചെയ്ത് ഞങ്ങൾ അടിമാലിയിൽ ഒന്നിച്ച് കൂടി പല സ്ഥലങ്ങളിൽ നിന്നുള്ളവർ ഞങ്ങളിൽ പലരും പല സ്ഥലക്കാ സ്ഥലത്ത് താമസിക്കുന്നവരാണ് കട്ടപ്പന ഭാഗത്ത് ഉണ്ട് വീടിനടുത്ത് തന്നെയുണ്ട് അങ്ങനെ പല സലങ്ങളിൽ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് കൂടിയത് അടിമാലിയിലാണ് അടിമാലിയിൽനിന്ന് ഞങ്ങൾ മൂന്നാറ് വരെ ഒരു ബസ്സിൽ ചെന്നു മൂന്നാറിലിറങ്ങി മൂന്നാറിൽ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു അതിന് ശേഷം ഒരു ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ അവിടെനിന്ന് മറയൂർ ഭാഗത്തേക്ക് പോയി മറയൂർ ചെന്ന് ബസ് ഇറങ്ങി മറയൂരിൽ ഞങ്ങളുദ്ദേശിക്കുന്നവ ഏറ്റവും ചുരുങ്ങിയ രീതിയിലുള്ള ഒരു യാത്രയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് അപ്പം അതനുസരിച്ച് ലോഡ്ജിലൊക്കെ മുറിയെടുക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥതിയൊന്നും അന്നുണ്ടായിരുന്നില്ല ഡിഗ്രി കഴിഞ്ഞ് ഒരു സമയമാണ് ആർക്കും പ്രത്യേകിച്ച് ജോലികളൊന്നും ഇല്ല ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പല വിധത്തിൽ ചെറിയ കൂലിപ്പണിയൊക്കെ ചെയ്തൊക്കെയാണ് പണം ഉണ്ടാക്കിയത് എല്ലാവരും വളരെ തുച്ഛമായ പണമേ ഞങ്ങളുടെ കൈയ്യിലുള്ളൂ പക്ഷേ ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു അഞ്ച് ദിവസത്തെ യാത്രയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പുറപ്പെട്ടതാണ് അങ്ങനെ ഞങ്ങൾ ആദ്യം മറയൂർ മറയൂർ ചെന്നപ്പോഴേക്കിനും ഏറെക്കുറേ സന്ധ്യയോടടുത്തു അവിടുന്ന് കാന്തല്ലൂർ എന്ന് പറയുന്ന സ്ഥലം വരെ പോകണം എന്നാണ് ഞങ്ങള് വിചാരിച്ച് കാന്തല്ലൂരിനപ്പുറത്ത് വട്ടവട എന്ന് പറയുന്ന സ്ഥലം അതാണ് ഞങ്ങളുടെ ലക്ഷ്യത്തിലുണ്ടായിരുന്നത് പക്ഷേ സമയം ഇച്ചിരി കൂടുതലായത് കൊണ്ട് അന്ന് മറയൂർ തന്നെ തങ്ങേണ്ട ഒരു സാഹചര്യം വന്നു അപ്പം മറയൂർ തങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ചു ആദ്യം ഇങ്ങനെ വിചാരിച്ചു അവിടെ ഈ മുനിയറകളൊക്കെ ഉണ്ട് അപ്പം അവിടെ എവിടെയെങ്കിലും മ് ഈ ഏതെങ്കിലും ഒരു മുനി മുനിയറക്കുള്ളിൽ കഴിയാമെന്നാണ് വിചാരിച്ചത് പക്ഷെ അത് എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ എന്നുള്ള ഒരു ഭയം പിടികൂടിയതുകൊണ്ട് അത് വേണ്ടെന്ന് വച്ചു അതിന് ശേഷം ഞങ്ങളവിടുത്തെ ഫോറസ്റ്റ് ഓഫീസിൽ ചെന്ന് ഫോറസ്റ്റ് ഓഫീസിൽ ചെന്ന് ഞങ്ങളിങ്ങനെ ഒരു യാത്രയുമായി വന്നതാണ് ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് കിടക്കാനുള്ളൊരു സൗകര്യം തരാമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവരാദ്യം വളരെ കാര്യമായിട്ട് താമസിക്കാന് ഉള്ള സൗകര്യമൊക്കെ പറഞ്ഞു പക്ഷേ ഞങ്ങളുടെ കൂടെയുള്ള ഒരാൾ മാധ്യമ പ്രവർത്തകനാണ് ജേർണലിസം കഴിഞ്ഞ ആളാണ് അപ്പം ജസ്റ്റ് ജേർണലിസം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പം ജേർണലിസ്റ്റ് ആണെന്ന് കേട്ടതോടു കൂടി അവർ ലൈൻ മാറ്റി പെട്ടെന്ന് തന്നെ അവർ തമ്മിലെന്തോ ആലോചിച്ചു എന്നിട്ട് ഇറങ്ങിവന്നിട്ട് പറഞ്ഞു പിള്ളേരെ ഇവിടെ താമസിക്കാന് പറ്റത്തില്ല ഇത് ഞങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങൾ വീണ്ടും ഇങ്ങന കെഞ്ചിയപ്പോള് നിങ്ങൾ എന്ത് ചെയ്താലും വേണ്ടിയില്ല എന്താണെങ്കിലും ഇവിടെ താമസിക്കാന് പറ്റില്ല എന്നവർ എടുത്തടിച്ച് വരെ പറഞ്ഞു ഒടുവില് ഞങ്ങൾ അവിടന്ന് പോന്നു ഒടുവില് ഗത്യന്തരമില്ലാതെ അവിടെ ഏറ്റവും ലോ റേഞ്ചിൽ കിട്ടുന്ന ഒരു ലോഡ്ജിൽ ഞങ്ങൾ താമസിച്ചു എന്ന് എന്ന് ലോഡ്ജ് താമസിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ചിലവ് വരുമെന്നുള്ളത് ഒടുവിൽ ഒരു രക്ഷയില്ലാതെ വന്നപ്പോളൊരു ലോഡ്ജിൽ താമസിച്ചു അതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ അവിടെനിന്ന് എഴുന്നേറ്റ് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഭക്ഷണം ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നടപ്പ് തുടര്ന്നു ഞങ്ങൾ അവിടുന്ന് നേരെ കാന്തല്ലൂർ കാന്തല്ലൂരിലെ ആപ്പിൾത്തോട്ടവും ഒക്കെ കണ്ടിട്ട് അവിടെ നിന്ന് വട്ടവട എന്ന സ്ഥലത്തേക്ക് തിരിച്ചു വട്ടവടയിൽ ഏതാണ്ടൊരു സന്ധ്യ ആയപ്പോൾ ഇരുട്ട് ഇരുട്ടിയപ്പോഴാണ് വട്ടവടയിൽ എത്തിച്ചേരാൻ സാധിച്ചത് വട്ടവടയിൽ അന്ന് അതായത് അവിടുത്തെ തണുപ്പെന്ന് പറയുന്നത് ഏതാണ്ട് മൈനസിനോടടുത്ത ഒരു സാഹചര്യമാണ് ഡിസംബർ മാസത്തിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ഏറ്റവും തണുപ്പുള്ള സമയമാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കിടക്കാനും സൗകര്യം ഒന്നും ഇല്ല ഇങ്ങനെ തപ്പിത്തേടി നടന്ന് ഒരു പാർട്ടിക്കാരനെ കണ്ട് കിട്ടി സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസിൽ ഞങ്ങളോട് കിടന്നോളാന് പറഞ്ഞു അപ്പം അവിടെ വ് ഉണ്ടായിരുന്ന ഈ അന്ന് ഈ ഫ്ലെക്സുകളൊന്നും ആയിട്ടില്ല ഈ ബാനറുകളാണ് എഴുതിയ ബാനറ്കളിങ്ങനെ ഫ്രെയിമിലടിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കുറച്ച് എണ്ണം ഒക്കെ എടുത്തിട്ട് ഞങ്ങളതിൻ്റെ മുകളിൽ കിടന്ന് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പുതപ്പും ഒക്കെ എടുത്ത് പുതച്ചു പക്ഷെ രാത്രി കുറേ ആയപ്പോഴേക്കും നിലത്തുനിന്ന് ഇങ്ങനെ തണുപ്പ് അരിച്ച് കയറുന്നത് ഞങ്ങള്ക്കറിയാൻ പറ്റി അതുകൊണ്ട് തന്നെ സുഖമായിട്ട് ഉറങ്ങാനൊന്നും പറ്റിയില്ല അങ്ങനെ അവിടെ ആ രാത്രി അവിടെ കഴിച്ചു കഴിച്ച് കൂട്ടി പിറ്റേ ദിവസം ഈ യാത്രയുടെ നടപ്പിന്റെ ഒരു ക്ഷീണം കൊണ്ട് ഞങ്ങൾ താമസിച്ചാണ് എഴുന്നേറ്റത് ഏതാണ്ടൊരു ഒമ്പത് മണിയോട് കൂടി എഴുന്നേൽക്കുമ്പോൾ ഞങ്ങൾ കാണുന്ന കാഴ്ച അവിടെ ചില ആളുകൾ പറമ്പിൽ പണി ചെയ്യുന്നുണ്ട് പക്ഷേ അവരൊക്കെ ഷാള് പുതച്ചുകൊണ്ട് നിന്നാണ് പറമ്പിൽ കിളക്കുന്നത് അപ്പം അത്ര മാത്രം തണുപ്പാണ് എന്നാണ് അത് സൂചിപ്പിച്ചത് അപ്പം അവിടുന്ന് ഞങ്ങൾ വീണ്ടും പ്രഭാതഭക്ഷണം ഒക്കെ കഴിച്ചിട്ട് യാത്ര തുടർന്നു അത് കാട്ടിലൂടെയുള്ള യാത്രയായിരുന്നു പണ്ട് കഞ്ചാവ് കൃഷിക്കാരൊക്കെ ഉള്ള ഒരു കാട്ടിലൂടെ ഉള്ള യാത്രയായിരുന്നു അത് ജീവിതത്തിലൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു